മലപ്പുറം ജില്ലയില് പ്രധാന വ്യാവസായിക സാമ്പത്തിക ഘടകങ്ങളെന്നു പറഞ്ഞുകഴിഞ്ഞാല് മലപ്പുറം ജില്ല മറ്റുള്ള ജില്ലകളില് നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു സാമ്പത്തിക സ്ഥിതിയുള്ള ജില്ലയാണ് കാരണം എന്തയിച്ചഴിഞ്ഞാല് ഇവിടെയുള്ള ഭൂരിഭാഗം ജനങ്ങളും പ്രവാസ ജീവിതം നയിക്കുന്ന ആള്ക്കാരും അവിടെ ഗള്ഫ് പോലുള്ള രാജ്യങ്ങളില് ജോലി ചെയ്യേം അവിടെനിന്നു സാമ്പത്തികമായിട്ട് നേട്ടങ്ങള് ഉണ്ടാക്കുകയും ആ പൈസ ഇവിടെ വന്ന് ഇതാക്കുന്നോര് സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത് പിന്നതേപോലെ എന്താച്ചാൽ പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആള്ക്കാരാണ് കൂടുതലുമുള്ളത് എന്നാലും വലിയ രീതിയിലുള്ളൊരു വ്യാവസായിക സംഘടനകളോ അല്ലെങ്കില് വ്യവസായിക സേവനമേഖലകളോ ഒന്നും തന്നെ നമ്മുടെ നാട്ടില് എനിക്ക് കണ്ടെത്താന് കഴിഞ്ഞിട്ടില്ല എന്നാല് പോലും ചെറിയ രീതിയിലുള്ള വ്യാവസായിക മേഖലയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടില് നടക്കുന്നുണ്ട് എന്നാല് പോലും വ്യവസായിക രംഗത്ത് അത്യാവശ്യം മികച്ച രീതിയില് നമ്മളെ ജില്ല നില്ക്കുന്നുമുണ്ട് സാമ്പത്തികമായിട്ട് നമുക്ക് ഭയങ്കര വില്പ്പവറുള്ളൊരു ജില്ല കൂടിയാണ് നമ്മളെ മലപ്പുറം എന്ന് പറയുന്നത്